ആ പറയെടാ തോമസേ പിന്നെ സുഖം ആ അതെന്നാ പറ്റിയത് എല്ലാം പെട്ടെന്നാണ് അല്ലേ ഞാനും ഡിഷ് ആക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോവുവാണ് കാരണം എന്നാന്ന് വെച്ചാൽ ഈ കേബിൾ പകുതി സമയം കേബിൾ ഇല്ലെന്നേ പിന്നെ എന്നാന്ന് വെച്ചാൽ അവൻമാരൊട്ട് വിളിച്ചാലും ഫോൺ എടുക്കില്ല നമ്മളെ എവിടെയെങ്കിലും കേബിൾ പൊട്ടി അവിടെ ഇവിടെ കേബിൾ പൊട്ടി അവിടെ കേബിൾ പൊട്ടി എന്നും പറഞ്ഞും ആ പകുതി സമയം കേബിൾ ഇല്ല മഴയും ആ നമ്മൾ മാസാമാസം പൈസ കൊടുക്കുന്നതല്ലേ ഒരു സാധനം കാണാൻ പറ്റില്ല അത്യാവശ്യത്തിന് പിന്നെ വാർത്ത കേൾക്കാൻ വേണ്ടി വയ്ക്കുമ്പോഴത്തേനും സാധനം ഇല്ല ആ പിന്നെ എന്നാ എന്ന് വെച്ചാൽ ഇമ്മാതിരി കേബിൾ ഇപ്പോൾ ഉള്ള് ഉള്ളിൽ ഒരു വലിയ സ്ഥലത്ത് ഉള്ളിൽ കയറിയാണ് വീട് വയ്ക്കുന്നതെങ്കിൽ ഇമ്മാതിരി കേബിൾ വലിക്കുന്നതിന് വേറെ ചാർജ് ഒക്കെ മേടിക്കും നല്ല ചിലവാണ് ആദ്യം കേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ ആ എന്നാ ആയാലും നന്നായി ഇനി ഇപ്പം തടസ്സം ഇല്ലാണ്ട് കാണാമല്ലോ ടി വി ഒക്കെ മേടിച്ചു ആ ഫോണിൽ ഇപ്പോൾ സിനിമ കാണാമെന്നേ അത് നീ എടുത്തില്ലായിരുന്നോ ഞാൻ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എത്രയാണ് മാസം ഒരു ചെറിയ പൈസയേ ആവുള്ളൂ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് സിനിമ കാണാം നമുക്കിപ്പം തീയേറ്റർ ഇറങ്ങിയ സിനിമ നമുക്ക് ഒ ടി ടിയിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടത് അങ്ങനെ അങ്ങനത്തെ സിസ്റ്റം ആണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് തീയേറ്ററിൽ പോയി ഇപ്പം ഒരു സിനിമ കാണണമെങ്കിൽ പത്ത് ഇരുനൂറ്റമ്പത് രൂപ കൊടുക്കേണ്ടേ ഇപ്പോൾ അതൊരു മാസം അങ്ങ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒ ടി ടിയിലേക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമയും നമുക്ക് നല്ല എച്ച് ഡി ക്വാളിറ്റി കാണാൻ പറ്റും പഴയ സിനിമയും കാണാം ആ നമുക്ക് എപ്പം വെണമെങ്കിൽ ഇല്ല നമുക്ക് അത് ടി വിയിലേക്ക് കണക്റ്റ് ചെയ്ത് കാണാമെന്നേ നല്ല സുഖം ആണെന്നേ മാസത്തിലൊരു പൈസ കൊടുത്താൽ മതി നമുക്ക് ടി വിയിലും കാണാം മൊബൈലിലും കാണാം ഇപ്പം വീട്ടിൽ ഒരു അഞ്ചാറ് പേർ ഉണ്ടെങ്കിൽ ഒരുമിച്ചൊരു പ്ലാൻ ഒക്കെ ഉണ്ട് ഫാമിലി പ്ലാൻ എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് വീട്ടിലുള്ള എല്ലാവരുടെയും മൊബൈലിൽ കൂടെ കാണാം ആ നല്ല വരുമാനം അല്ലേ ആ അത് അങ്ങത്തെ സംഭവം ഒക്കെയാണ് പുതിയ ഓരോ പരിപാടി

ആ എന്നാൽ ആയിക്കോട്ടെ എടാ ഞാൻ ഇവിടെ ഡിഷിൻ്റെ അത് കൊണ്ട് കൊടുക്കട്ടെ ആ